ആ പറഞ്ഞോളൂ അതെ അതെ അതെ അതെ ആ എന്തൊക്കെയാണ് സാറേ വേണ്ടത് പായസത്തിന് വേണ്ടിയിട്ടുള്ളത് ഏത് പായസം ആണ് സാറേ ഏത് ഏത് പായസം ആണ് സാറേ ഏത് പായസം ആണ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത് നമ്മൾക്ക് എങ്കിൽ ഈ പ്രഥമൻ ഈ അട പായസം അതുപോലെ തന്നെ നമ്മളെ ഈ സേമിയ പായസം സെറ്റ് ചെയ്യാം സാറേ അപ്പഴ് ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടായിട്ടാണ് സാറേ വരണത് എത്ര പേര് ഫംഗ്ഷനിൽ പങ്കെടുക്കൂമെന്നാണ് ഇത് ഒരു തോന്നൽ ഇത് നൂറ്റി പത്ത് പേർക്കുള്ളതാണെ നമുക്ക് കിറ്റാണ് സാറേ ഇരിക്കുന്നത് നമ്മളെ കൈയിൽ അത് നമ്മൾ വീട്ടിൽ ഡെലിവറി ചെയ്തു തരാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ കിറ്റിന് പ്രൈസ് പറയുന്നത് വച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോ ഓ കിറ്റ് സംതിംഗ് വരും അതിനകത്ത് പക്ഷെ മൂന്ന് കിലോ കിറ്റ് നമ്മൾക്ക് വേണം എങ്കിൽ ഒരു എട്ട് കിലോ എത്തുമ്പോൾ കണക്കാക്കാം അത് അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു കിറ്റിന് അകത്തൊരു എഴുന്നൂറ് രൂപയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി ഇല്ല സാറേ നമ്മൾ വച്ച് കൊടുക്കാനുള്ള കാറ്ററിംഗ് സർവീസ് സർവീസുകാർ ഇല്ല സാറേ നമ്മൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം ഡെലിവറി ചെയ്യുന്ന ഒരു ഇത് മാത്രമേ നമ്മൾക്കുളളൂ ആ ലൊക്കേഷൻ അയക്കണം സാറേ വാട്ട്സ്ആപ്പിൽ ആണെങ്കിൽ ലൊക്കേഷൻ അയക്കണം അതുപോലെ തന്നെ ഒരു ലാൻഡ്മാർക്ക് കൂടെ കൊടുത്തേക്കണം സാറേ ലാൻഡ്മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ നമ്മളെ ഈ ഡീലർമാർക്ക് അങ്ങ് കൊണ്ട് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ ബിരിയാണി സദ്യയും വേണം അല്ലേ സാറേ അപ്പോൾ രണ്ടും ഉണ്ട് ബിരിയാണിയും സദ്യയുമെന്ന് വച്ച് കഴിഞ്ഞാൽ ഏത് ബിരിയാണി സാറേ ചിക്കൻ ബിരിയാണി ആണോ വെജിറ്റബിൾ ബിരിയാണി എന്ത് വേണം ആ ചിക്കൻ ബിരിയാണി ആ അത് നമ്മൾക്ക് ചിക്കൻ ഇവിടെ നിന്ന് എടുക്കാം ആ നമ്മൾക്ക് തൊട്ട് അടുത്ത് കടയുണ്ട് അവിടെ നിന്നെടുക്കാം അതുപോലെ ബിരിയാണിയുടെ അരിയും അതുപോലെ അതിനകത്ത് ചേരുവകളും കാര്യങ്ങളും എല്ലാം ഒരു കിറ്റായിട്ടാണ് വരണത് ഇത് ഈ സാധനം സേമിയ പായസത്തിനും പ്രഥമ പായസത്തിനും വരണ കിറ്റ് കണക്ക് തന്നെയാണ് ബിരിയാണിയുടെ കിറ്റും കാര്യങ്ങളുമായിട്ട് വരുന്നതേട്ടാ അപ്പഴ് അതിനെല്ലാം കൂടെ ഒരു ടോട്ടലായിട്ട് ഞാൻ ഒരു എമൗണ്ട് പറയാം അപ്പോൾ സാർ അതിങ്ങ് തന്നാൽ മതി നമ്മൾക്ക് അത് ഡീലെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് സംസാരിച്ച് പിന്നെ നമ്മൾക്ക് ഡീൽ ചെയ്തോളാം ഇത് ഇതിനും എത്ര പേര് പ്രതീക്ഷിക്കാം വരുന്നത് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് തന്നെ എത്ര ഇരുന്നൂറ്റി പത്ത് പേര് നമ്മൾക്ക് നോക്കാം സാർ അപ്പോൾ ഈ ഈ രണ്ടും വേണ്ടേ ചോറും വെള്ളച്ചോറും വേണ്ടേ

സാറേ ആ ബിരിയാണിയുടെ അരി രണ്ട് മൂന്ന് ടൈപ്പുണ്ട് കേട്ടോ ഏത് അരിയാണ് വച്ച് കഴിഞ്ഞാൽ ചെറിയ അരി മതിയോ വലിയ അരി വേണോ വലിയ അരി ആ ശരി അപ്പോൾ ഈ വെള്ള ചോറിനകത്ത് ഏത് സൈസാണ് സാർ ഇരുപത്തി രണ്ട് രൂപയുടെ അരിയുണ്ട് രണ്ടരയുടെ അരിയുണ്ട് ഏതാണ് വേണ്ടത്

ആ ഇത് എന്ന് ഫുഡ് അല്ല ഫുഡ് അല്ല അരി

ഫീസ് നമ്മൾ ആദ്യം അവിടെ വരണം സാർ നമ്മൾ അവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ എല്ലാം ഡെലിവറി ചെയ്തതിന് ശേഷം ഡെലിവറി ചാർജ് കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ തരുന്നത് നമ്മൾ എന്തെങ്കിലും ഹോം ഡെലിവറി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെലിവറി ചാർജ് കൂടെ ചേർന്നിട്ട് സാധനത്തിൻ്റെ ഒരു ലിസ്റ്റ് ലിസ്റ്റൊക്കെ എടുത്ത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമാണ് ഷോപ്പ് തിരുവനന്തപുരം ആണ് ആ കൊല്ലത്തും നമ്മൾക്ക് ബ്രാഞ്ചുണ്ട് ഇത് കൊല്ലത്ത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത് ഓ അപ്പോൾ ഷോപ്പിൽ ആ ഇത് ഇപ്പഴ് ഈ ഡെലിവറി ഓർഡറ് തന്നിരുന്നാൽ കുഴപ്പമില്ല സാറേ നമ്മൾ എത്ര സാധനങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ നമ്മൾക്ക് അത് എത്തിച്ചേരാനുള്ള സ്റ്റെപ്പൊന്ന് നോക്കാമായിരുന്നു ആ പിന്നെ സാറേ ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാൻ ഉള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ഈ ചെറിയ ഗ്ലാസുകളും കാര്യങ്ങളെക്കെ ഉണ്ടായിരുന്നു കേട്ടാ നമ്മക്ക് അത് നിങ്ങൾ വെളിയിൽ നിന്ന് എടുക്കണേക്കാട്ടും നമ്മൾക്ക് ഇവിടുന്ന് എടുക്കുന്നത് ആയിരിക്കും ലാഭം കാര്യന്നെച്ചാ നമുക്ക് സംസാരിച്ച് വില കുറവ് വച്ച് തരേണ്ട ചെയ്യുക ഓ നമ്മൾക്ക് നോക്കാം സാറേ അത് ഇപ്പം എന്തരൊക്കെ ആയാലും നമ്മൾ ഏറ്റു പോയില്ലേ അത് നമ്മൾക്ക് കുഴപ്പമില്ല അത് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തോളാം പിന്നെ സാറേ ഈ ഈ പാത്രങ്ങളൊക്കെ എങ്ങനെ എടുക്കണത് പാത്രങ്ങളൊക്കെ ഹൗസ് വാമിംഗ് അല്ലേ വീട്ടാവശ്യത്തിനുള്ള പാത്രങ്ങൾ ഒക്കെ എടുക്കണോ സാറേ ആ വേവിക്കാനുള്ള സാധനം അല്ല സാറേ നമ്മൾക്ക് ഇപ്പോൾ ഒരു വേവിക്കാനുള്ള സാധനം അല്ല സാറേ വീട്ടിലെ ആവശ്യത്തേക്കുള്ള അല്ലറ ചില്ലറ ഈ കരണ്ടിയും പാത്രങ്ങളൊക്കെ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് എടുക്കാമായിരുന്നു പുതിയ പുതിയ വീട്ടിൽ കേറണ അല്ലേ അതുപോലെ തന്നെ നമ്മൾ താഴത്തെ താഴത്തൊരു ഗോഡൗൺ ഉണ്ട് അവിടെ ആണേ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും അപ്പോൾ എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ സാറൊന്ന് സംസാരിച്ചിട്ട് ഇപ്പം സംസാരിച്ചിട്ട് വിളിച്ചാൽ മതി സാറേ ഓ ഓ ശരി സാറേ ശരി